ഹൽ ഹലോ ഇത് പാരഡൈസ് റിസോട്ടല്ലേ ഞാനിവിടെ നാട്ടിന്ന് എറണാകുളത്തൂന്ന് അമലയാണ് എനിക്ക് ഫാമിലിയായിട്ട് വെക്കേഷനാണ് അപ്പോൾ ടൂറ് വരാനായിട്ട് ഒന്ന് താമസിക്കാനായിട്ട് ഉള്ള ഒരു റിസോട്ടന്നേഷിച്ച് ഞാൻ വിളിച്ചതാണ് നല്ല റിസോർട്ടാണെന്ന് കേട്ടു പാരഡൈസ്സ് അപ്പോൾ അതിനെക്കുറിച്ചെന്തേലും പറയോ ഞങ്ങൾക്കൊരു വൺ വീക്കിന് വേണം കുറഞ്ഞ റേറ്റിലാണ് നോക്കണത് ഏകദേശം റേറ്റക്കെ എന്തോരാവും റൂമിനക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു നാ ആ അഞ്ചുപേരുണ്ടാവും ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഭക്ഷണം ആണ് ആ ഇത് നല്ലൊരു പാക്കേജാണല്ലോ അപ്പോൾ ഡ്രിങ്ക്സ്സക്കെ അവൈലബിളാണോ ആ ഓക്കെ മാഡം ക്ളീനിങ്ങും കാര്യങ്ങളൊക്കെയൊ

അപ്പം ഞങ്ങളിത് ബുക്ക് ചെയ്യാണ് ഞങ്ങൾക്കിത് ഭയങ്കരിഷ്ടപ്പെട്ടു

എനിക്ക് ഒരു മേയ് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെ അമല പേരമല ആ അത് ചെയ്തേക്കാം മാഡം ആ ശരി മാഡം താങ്ക് യൂ ആ താങ്ക് യൂ